പൂച്ച പട്ടിയാണോ പൂച്ച പട്ടിയാണോ ആ എന്താണ് പറഞ്ഞത് പൂച്ചക്കുട്ടി ഓക്കെ എത്ര മാസമായി ആ പൂച്ചക്കുട്ടി ഓക്കെ ആ കുഞ്ഞാണോ എത്ര മാസമായി വൺ ഇയർ ആയിട്ടുണ്ട് വാക്സിനേഷനൊക്കെ എടുത്തിട്ടുണ്ടോ എല്ലാ വാക്സിനേഷനും എടുത്തിട്ടുണ്ട് ഡിവോർമിങ് ഡിവോർമിങ്ങൊക്ക ചെയ്തിട്ടുണ്ടോ ഓക്കെ ആ എ എപ്പോഴാണ് ലാസ്റ്റ് ഡിവോർമിങ് ചെയ്തത് ഈ മാസമാണോ ഈ മാസം ഡിവോർമും ആ കഴിഞ്ഞ അതായത് ആ മെയ് മാസത്തിൽ ഡിവോർമോങ് ചെയ്തിട്ടുണ്ട് വാക്സിനേഷനോ ആറുമാസം കൂടുമ്പോൾ ചെയ്യുന്നത് ചെയ്തോ ചെയ്യണമായിരുന്നു ഇപ്പം ഒരു വയസ്സെന്ന് പറയുമ്പം പിന്ന ഇനി റാബിസിൻ്റെ ആൻറ്റി റാബിസിൻ്റെ ഒന്നു കൂടെ എടുക്കാനുണ്ട് അത് ആ അത് എടുത്തോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യെതോളൂ എന്തായാലും ചെയ്യണം അതുപോലെ പിന്നെ ഈ പറയുന്ന റാബീസിൻ്റെ ഇൻജെക്ഷൻ അത് ആറുമാസം കഴിഞ്ഞു ചെയ്യേണ്ടതാണ് അപ്പം പിന്നെ ആ ആ എട്ടാമത്ത ആ ഒരു വർഷം ഒരു വർഷം ഒരു വർഷം ആകുമ്പോൾ പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ ചെയ്യണ്ടതാണ് അപ്പം ഒന്ന് ഓ ആത് ഉണ്ടോ ഉണ്ടെങ്കിൽ അവർ വാക്സിനേഷൻ ചെയ്ത ഒരു ബുക്കോ കാർഡോ എന്തെങ്കിലും തരികയുള്ളൂ അതൊന്ന് ചെക്ക് ചെയ്യുമോ പിന്നെ അതുപോലെ ഡിവോർമിങ് പ്രോപ്പർ ആയിരിക്കണം പിന്ന ആഹാരം ഒരു വയസ്സ് അപ്പം വയറിന് സുഖം ഇല്ല പിന്നെ അതുപോലെ മുടികൊഴിച്ചിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആഹാരം പാലു പോലെയുള്ള ആഹാരം കുറച്ചു കുറച്ചിട്ട് എന്തെങ്കിലും വേറെ എന്താണ് അതിന് ഇഷ്ടമുള്ളതെന്ന് വച്ചാൽ അത് ആ അത് കൊടുക്കാം കുറച്ചു ഡ്രൈ ഫുഡായിട്ട് കൊടുക്കാം പാൽ ഒരു വയറിളക്കം വയറ് ലൂസ് മോഷൻ എന്നല്ലേ പറഞ്ഞത് ആ അപ്പം ലൂസ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാൽ ഒഴിവാക്കുക അതൊന്ന് മാറുന്നത് വരെ പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് പെഡിഗ്രി അല്ലെങ്കിൽ കുറച്ചു കൂടെ ക്വാളിറ്റി ഉള്ള ആ റോയൽ കാനിൻ പോലെയുള്ള എന്തെങ്കിലും കുറച്ചു ഡ്രൈ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം പേടിഗിരി ആണോ കൊടുക്കുന്നത് ഓക്കെ ആ ഓക്കെ ആ അത് വീട്ടിൽ വീട്ടിലെ ഫുഡ് അല്ലെ പെറ്റ് ഫുഡ് കൊടുക്കുന്നുണ്ട് ഓക്കെ ആ പാൽ ഒന്നൊഴിവാക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നും പ്രശ്നമൊന്നും ഇല്ല പിന്നെ മുടികൊഴിച്ചിൽ പൊതുവെ ഈ പറയുന്നത് പോലെ കാലാവസ്ഥ മാറുമ്പോഴും വരാറുണ്ട് ഇപ്പം വേനലിൽ നിന്ന് വേനൽകാലത്തിൽ നിന്ന് ഒരു മഴക്കാലം വരുമ്പോഴും മാറും മഴക്കാലത്തിൽ നിന്ന് ഒരു വേനൽക്കാലം ആവുമ്പഴേക്കും അപ്പോഴും ഈ കൊഴിച്ചിൽ ആ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട് ഓരോന്ന് അത് നോക്കാം ഇനി ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഫിക്സ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെക്ക് ചെയ്തേക്കൂ അങ്ങനെ നേരത്തെ ഫിക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും

അതിൻ്റെ ഹെൽത്തും പിന്നെ അതിനെത്ര വെയിറ്റ് ഉണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ ഒരുവയസ്സിന് എന്ത് വെയിറ്റ് ഉണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഓക്കെ